ഇപ്പം പല തരത്തിലുള്ള പാചക രീതികൾ ഉണ്ടെങ്കിലും എനിക്ക് കൂടുതലായി നമുക്കിപ്പം എന്നു നമ്മളെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം കുറേ പേര് നമ്മളുടെ വീട്ടിലൊക്കെ വരില്ലേ ഒരു പത്തു പതിനഞ്ച് പേരൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അയ്യോ പിന്നെ എന്താണ് ഉണ്ടാക്കണ്ടേ ഏതാണ് ഉണ്ടാക്കണ്ടേ എങ്ങനെയാണ് ഉണ്ടാക്കണ്ടേയെന്ന് എന്നുള്ളൊരു നമുക്കൊരു ടെൻഷൻ വരും കാരണം എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്നോ നാലോ അല്ലെങ്കിൽ പോട്ടെ അഞ്ച് പേർക്കൊക്കെ വെച്ചിട്ടുള്ള ശീലമേ നമുക്കുള്ളൂ അപ്പം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുറേ പേരൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഏത് രീതിയിലാണ് വെക്കണ്ടതെന്നുള്ളൊരു ടെൻഷൻ നമുക്കെപ്പോഴും ഉണ്ടാകും കാരണമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലാണ് വെക്കേണ്ടതെന്ന് നമുക്കറിയില്ല കാര്യമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതായത് നമ്മൾ വെക്കുന്ന രീതികൾ അതായത് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര മസാലപ്പൊടി ഇടണം അല്ലെങ്കിൽ ഇപ്പം ചോറിനാണെങ്കിൽ എത്ര വെള്ളം വെക്കണം കറിക്കാണെങ്കിൽ മസാലപ്പൊടി കൂടുമോ കുറയുമോ അങ്ങനെയുള്ള ടെൻഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മൾ അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് പക്ഷെ നമ്മളപ്പോ ആ സ്ഥാനത്ത് നമ്മൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല കാരണമെന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ അതായത് വീട്ടിൽ നാലോ അഞ്ചോ പേർക്കാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നല്ല എളുപ്പത്തിൽ നമുക്ക് വെക്കാൻ പറ്റും